ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു യോഗ ഗുരുവാണ് രാംദേവ് അദ്ദേഹം എല്ലാ ദിവസവും പല ടീവി ചാനല്കളിലൂടെയും നമ്മളെ യോഗാസനങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരുന്നു പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യോഗാസനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള അസുഖവും ബാധിക്കുകയില്ല മുടികൊഴിച്ചില് വയറില് ഗ്യാസ് നിറയുന്ന പ്രശ്നങ്ങള് തടി കൂടുന്ന പ്രശ്നങ്ങള് അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള യോഗാസനങ്ങൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞ് തരുന്നത് കൊണ്ട് അത് ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല വളരെ നല്ല ഒരു യോഗ ഗുരുവാണ് രാംദേവ് അദ്ദേഹത്തിൻ്റെ യോഗാഭ്യാസം കണ്ടത് കൊണ്ട് നേരിൽ കണ്ടിട്ട് അത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തില് വച്ചിട്ട് ഒരു പ്രോഗ്രാമുണ്ടായിരുന്നു അതില് വച്ചിട്ട് അദ്ദേഹം നേരിട്ട് അഭ്യാസപ്രകടനങ്ങൾ കണ്ടത് മൂലമാണ് എനിക്ക് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ യോഗാഭ്യാസത്തിൽ താല്പര്യം തോന്നുകയും അദ്ദേഹത്തെ ഫോളോ ചെയ്യാനും തുടങ്ങിയത്